ഞങ്ങളുടെ വീട്ടിലുള്ളത് കോഴിയാണ് ഞങ്ങൾ കോഴിയെ ഏകദേശം പത്ത് മുപ്പത് കോഴിയോളമുണ്ട് അപ്പം അത് പിന്നെ കോഴിവളർത്തൽ കോഴിവളർത്തൽ നല്ലൊരു ബിസിനസ്സ് തന്നെയാണ് പിന്നെ ഇപ്പം ഒരു കോഴിമുട്ടക്ക് ഏകദേശം ഒരു എട്ട് രൂപ വിലയുണ്ട് നമ്മൾക്ക് അവർക്ക് കൃത്യമായ ഭക്ഷണരീതിയും പിന്നെ മുട്ട തീറ്റിയുണ്ട് മുട്ടയിടാനുള്ള തീറ്റിയുണ്ട് അത് പ്രത്യേകമുണ്ട് അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് അവർക്ക് കൊടുക്കും അപ്പമവർ അവർ മുടക്കമില്ലാണ്ട് മുട്ടയിടും പിന്നെ അതുപോലെ തന്നെ അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങളും കൃത്യമായ മരുന്നുകൾ പിന്നെ വൈറ്റമിൻ മരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ അവർക്ക് പിന്നെ എര മരുന്നുണ്ട് അതൊക്കെ അവരുടെ തീറ്റിയിൽ നമ്മൾ പൊടിച്ച് പിന്നെ തുള്ളിമരുന്ന് പോലെയാണെങ്കിൽ അത് കുടിക്കുന്ന വെള്ളത്തിൽ നമ്മളൊഴിച്ച് അങ്ങനെയൊക്കെ അവർ അത് പിന്നെ കഴിച്ചോളും പിന്നെ അവരുടെ കൂടുകളുമൊക്കെ വൃത്തിയാക്കണം അവർക്ക് അണുക്കൾ ഒന്നും കയറാത്ത രീതിയിൽ നമ്മൾക്ക് അവ അവരെ സുരക്ഷിതമായിട്ട് പരിപാലിക്കണം പിന്നെ ഗോതമ്പ് വൈകുന്നേരം സമയങ്ങളിൽ ഗോതമ്പ് അവർക്ക് കൊടുക്കാറുണ്ട് പിന്നെ കുറച്ച് നേരം അവരാ പിന്നെ നമ്മുടെ പറമ്പിൽ തന്നെ അവരെ അഴിച്ച് വിടുകയും ഒരു മണിക്കൂർ സമയമൊക്കെ മറ്റുള്ള വീടുകൾക്ക് ശല്യം ഉണ്ടാകാത്ത രീതീൽ നമ്മുടെ വീട്ടിൽ തന്നെ അവരെ നടക്കുന്ന രീതിയിലുള്ള സൗകര്യം നമ്മളൊരുക്കി കൊടുക്കണം പിന്നെ മറ്റ് ഇഴ ജന്തുക്കൾ പട്ടി അങ്ങനെയൊന്നും അവരെ ആക്രമിക്കാതെ നമ്മൾ നോക്കണം അങ്ങനെ നമ്മൾ അവരെ കൂടുതൽ കെയറ് ചെയ്യുമ്പോൾ നമ്മൾക്ക് അത് നേട്ടമാണ് കാരണം പൂവങ്കോഴിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അത് വിൽക്കാം പൂവിന് ഈ കോഴികൾ കോഴി ഇറച്ചി അന്വേഷിച്ച് വരും പൂവങ്കോഴീനെ തിരക്കി വരുന്നവർക്ക് കൊടുക്കുക പിന്നെ അപ്പം അത് നമ്മൾക്കൊരു പിന്നെ ലാഭമാണ് അങ്ങനെ കൂടുതൽ കോഴിയുണ്ടെങ്കിൽ കൂടുതലായിട്ട് നമ്മൾക്ക് പിന്ന മുട്ട വിരി മുട്ടവെച്ച് നമ്മൾക്കത് വിരിയിച്ചെടുക്കാൻ അപ്പങ്ങനെ നമ്മൾ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ നേട്ടമാണ് അപ്പം കോഴി വളർത്തൽ നന്നായിട്ട് കോഴിയെ പരിപാലിച്ച് കൊണ്ട് പോയാൽ ഒരു നല്ലൊരു കാര്യം തന്നെയാണ് കോഴി വളർത്തൽ നല്ല നേട്ടം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ വീട്ടിൽ കുറെ നാളായിട്ട് കോഴി വളർത്തുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ട് പിന്നെ നമ്മുടെ അത്യാവശ്യത്തിന് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾക്ക് കറിക്ക് ഉപയോഗിക്കാം മുട്ടയുണ്ടെങ്കിൽ കടയിലോ അവിടെ ഇവിടെയൊന്നും നടക്കേണ്ട കാര്യമില്ല പിന്നെ ബാക്കി മുട്ട നമുക്ക് അപ്പുറത്തെ വീടുകളിൽ വീടുകളിൽ വന്ന ആളുകൾ വാങ്ങിച്ചോണ്ട് പോയിക്കൊളും അപ്പമത് അതങ്ങനെ വിറ്റ് പോവും നമ്മൾ വേറെ പുറത്തൊന്നും കൊണ്ട് നടന്ന് വിൽക്കേണ്ട കാര്യമില്ല നാടൻ മുട്ടയ്ക്ക് നല്ല ഇതാണ് കാരണം ചുമയ്ക്കും കാര്യങ്ങൾക്കുമൊക്കെ നാടൻ മുട്ട ഒരു ഔഷധി കൂടിയാണ് കോഴി മുട്ട അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപകരിക്കും